ചേട്ടാ ഇത് ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി എത്ര നേരമെടുക്കും അധികം നേരമെടുക്കുമോ എനിക്ക് ആണെങ്കിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പത്ത് മണിയാവുമ്പോഴ് ഇപ്പോൾ തന്നെ ഒൻപതേ മുക്കാൽ ആയില്ലേ ഇത്രയും ട്രാഫിക്കില് ഇനിയും വെയ്റ്റെയ്യാണെങ്കിൽ എനിക്കാ മീറ്റിങ് കറക്റ്റ് ടൈമിൽ അറ്റെൻറ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നമ്മുക്ക് പോകാൻ വല്ല ഷോട്ട് വഴികള് ഏതേലുമുണ്ടോ ചേട്ടനറിയോ ഒരു പത്ത് മിന്റ്റാണെങ്കിലും ഒരു പത്തിരുപത് മിന്റ്റിൽ നമ്മുക്കെത്താൻ പാകത്തിന് ഒരു പത്ത് മണി കഴിയുമ്പോഴെങ്കിലും എത്താൻ പാകത്തിന് ഏതേലും വഴീകൂടെ പോയാൽ എത്താൻ പാകത്തിനറിയോ ഏതേലും ഏതേലും ഷോട്ട്കട്ട് എന്തെങ്കിലും അറിയുമോ ചേട്ടന് കുറുക്കു വഴികളോ എന്തേലും ഹോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ലെഫ്റ്റെട്ത്താൽ മതിയില്ലേ എന്നാൽ നമക്കിപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങാനും പോയിട്ട് അല്ലേല് കുറച്ച് വേഗത്തിൽ പോവാനൊക്കെ പറ്റുമോ ഇവിടുന്നീ ട്രാഫിക് കഴിയുമ്പോൾ കുറച്ച് വേഗത്തിലെന്നെ അവിടെ എത്തിച്ചാലും മതി എനിക്കൊരു പത്തെ ഇരുപത് അല്ല പത്തെ പത്ത് ഒക്കെ ആവുമ്പോത്തിനും അവിടെ എത്തണം പത്തെ ഇരുപത് ആവുമ്പോത്തിനും മീറ്റിങ് കഴിയും എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് ഒരു പത്ത് മണി കഴിയുമ്പഴെങ്കിലും അവിടെ എത്തേണ്ട ആവശ്യണ്ടായിരുന്നു ഇതിൻ്റെ മുൻപിൽ നിന്ന് കുറച്ച് പോകുമ്പോൾ അങ്ങ് മാറിയ മതിയോ ഞനിവിടന്നെറങ്ങയി നടന്ന് അവിടെപ്പോയി വല്ല ഓട്ടോ സ്റ്റാന്റിലും വല്ലോപോയി വല്ല ഓട്ടോ വല്ലതും പിടിച്ച് പോകേണ്ടി വരുമോ അല്ലേല് ഇവിടെ ഈ ട്രാഫിക്കിപ്പൊ കഴിയുമ്പോ വലിയ സ്പീഡീൽ പോകേണ്ടി വരും കാരണം ഇനി ഓവർസ്പീഡായാൽ അതും വലിയ പ്രശ്നാവില്ലേ അപ്പോൾ ഞാനിപ്പൊൽ എന്താ ചെയ്യണ്ടേ ചേട്ടനെന്നെ കറക്റ്റ് ടൈമിലവിടെ എത്തിക്കാൻ പറ്റുമോ അതോ ഞാൻ വേറെ വല്ല വണ്ടീം പിടിച്ച് പോവണ്ടി വരുവോ വേറെയൊന്നും അല്ല ചേട്ടാ ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇല്ലേ ഞാൻ ചേട്ടനെ തന്നെ അല്ലേ എന്നും വിളിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും ചേട്ടൻ എന്നെ ആ സമയത്ത് എത്തിക്കാൻ പറ്റുമോ ഇല്ല്യോ എനിക്കൊന്നു പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ചേട്ടാ എത്തിക്കാൻ പറ്റൂലേ ഓക്കെ ഞാന് ചേട്ടനിലാണ് വിശ്വസിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങായിരുന്നു അത് അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ ഇതിനിപ്പൊൽ ഇത് പാർട്ടിയിൻ്റെ എന്തെങ്കിലും പരിപാടി ആണോ ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണോ ഇങ്ങനെ ബ്ലോക്കായത് ഓഹ് ഓഹ് കഴിഞ്ഞ ദിവസം അച്യുതാനന്തൻ്റെ ബർത്ത്ഡേൻ്റെ ഇതാന്നും പറഞ്ഞ് പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനമോ ആഘോഷമോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയ്ന്നുണ്ടായിരുന്നു അതാണല്ലേ ആ ഓക്കെ എനിക്കാണെങ്കിൽ ഇവർക്കിങ്ങനെ ഓരോ പരിപാടികള് വെച്ചാൽ പോരേ നമുക്കല്ലേ ബുദ്ധിമുട്ട് ഇതെനിക്ക് ഇനി എനിക്ക് പത്തെ പത്തിന് എത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടനെന്നെ കറക്റ്റ് ടൈമിന് എത്തിക്കുമല്ലോ അല്ലേ